ഞാൻ വാദ്യോപകരണം വായിക്കാറില്ല വായിക്കാൻ ആഗ്രഹമൊക്കെയുണ്ട് പക്ഷേ ഞാനിത് പഠിച്ചിട്ടില്ല പഠിക്കാനും ആഗ്രഹമൊക്കെയുണ്ട് ശ്രമിച്ചൊക്കെ നോക്കി പക്ഷേ എനിക്ക് അതിനു കഴിയണില്ല വാദ്യോപകരണം വായിക്കാൻ പിന്നെ എനിക്ക് ചെണ്ട കൊട്ടാനാണെനിക്ക് ഇഷ്ടം ആഗ്രഹം ചെണ്ട കൊട്ടാന് നല്ല ആഗ്രഹമാണ് പക്ഷെ ഞങ്ങളെ ഉമ്മാന്റെ അനിയത്തീന്റെ വീടിന്റെ അടുത്ത് ഒരു താലപ്പൊലി ഉണ്ടായിരുന്നു താലപ്പൊലിയെന്നു ഞാൻ ചെണ്ട വാങ്ങി അന്ന് കൊട്ടാന് ശ്രമിച്ചു നോക്കി പക്ഷെ എനിക്കതിനു കഴിയുന്നില്ല ഓര് കൊട്ടുന്നതും നോക്കി ഞങ്ങൾ കുറേ സമയം അങ്ങനെ ഇരുന്നു പിന്നെ എന്നെപ്പോലെ അത് കാണാന് വന്ന അവിടെത്തന്നെ അടുത്തുള്ള ഒരാൾ ചെണ്ട കൊട്ടാന് അയാള്ക്കും ആഗ്രഹമുണ്ടായിരുന്നു പറഞ്ഞ് അപ്പോൾ അത് ചോദിച്ചയാള്ക്ക് ഓര് ചെണ്ട കൊടുത്തു അയാൾ ചെണ്ട വാങ്ങിയിട്ട് അതൊന്നു കൊട്ടി നോക്കി അയാള്ക്ക് ചെറുതായിട്ടൊക്കെ ചെണ്ട കൊട്ടാനൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളത് നോക്കി നോക്കി കണ്ട് ഒരുപാട് സമയം അവിടെ ഇരുന്നു പിന്നെ ചെണ്ട പിടിക്കുന്നതും ഇതൊക്കെ വേറൊരു ഷെയിപ്പിലാണല്ലോ അതൊക്കെ നോക്കി കുറേ കണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയൊക്കെ ഇരുന്നു ഇനി എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ താലപ്പൊലി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്